ഞാൻ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടീട്ടൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പകുതി തുക ആയ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ആയിരുന്നു ക്യാബിനു വേണ്ടിയിരുന്നത് പകുതി തുക ആയ അഞ്ഞൂറ് രൂപ ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവറിന് അപ്പോൾ ഞാൻ എൻ്റെ യാത്ര ചില കാര്യങ്ങൾ കാരണങ്ങൾ മൂലം ഒഴിവാക്കി എനിക്കൊരു അത്യാവശ്യവായിട്ടൊരു ഹോസ്പിറ്റൽ കേസ് വന്നു അപ്പം അതുകൊണ്ടു തന്നെ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പം ആ പോകുന്നില്ലാത്തതു കൊണ്ട് തന്നെ ഡ്രൈവറിനടച്ച ആ അഞ്ഞൂറ് രൂപ എന്ന തൂക എനിക്ക് തിരിച്ച് വേണമായിരുന്നു അപ്പം ചില സാഹ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് എനിക്ക് പോകാൻ പറ്റാത്തത് പക്ഷെ ഞാൻ പോയില്ലാത്തത് കൊണ്ട് തന്നെ ഞാനടച്ച പൈസ എനിക്ക് തിരിച്ച് വേണം എനിക്കൊന്നുകിൽ പേറ്റിഎം വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ പണ പണം വേണം അപ്പോൾ അല്ലെങ്കിൽ എനിക്കെൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ തന്നാലും മതി അപ്പം എനിക്കെൻ്റെ പൈസ തിരിച്ചു വേണം എൻ്റെ പ്രശ്നം മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത് എനിക്കറിയാം പക്ഷെ ഞാനെന്തായാലും യാത്ര ചെയ്തില്ല ജെസ്റ്റ് ബുക്ക് ചെയ്ത് അഡ്വാൻസ് അടച്ചതേയുള്ളൂ അപ്പം അതുകൊണ്ടു തന്നെ എനിക്കെൻ്റെ പൈസ തിരിച്ചു വേണം